ബാങ്ക് എന്ന് പറയുന്നത് എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് കാരണം പണത്തിന്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ പണം ഇല്ലാത്ത അവസ്ഥയിൽ എല്ലാവരും സമീപിക്കുന്നത് പലപ്പോഴും ബാങ്കിനെ ആണ് ബാങ്ക് തരുന്ന അപേക്ഷകൾലാണെന്നുണ്ടെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ആയിരിക്കും ഇത് ഈ പ്രായമായി വരുന്ന ആൾക്കാർക്കോ അല്ലെങ്കില് അത്ര വിദ്യാഭ്യാസ പരമായിട്ട് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും എന്താണതില് ചെയ്യണ്ടത് ഇവിടെ എന്താ എഴുതേണ്ടത് എന്നുള്ളിടത്തൊക്കെ പലപ്പോഴും പല സംശയങ്ങളുണ്ടാവാം പക്ഷേ അവർക്കത് എങ്ങനെ ചോദിക്കണം എന്നൊന്നും ഉള്ള ഒരറിവുണ്ടാരിക്കില്ല അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയത്തില്ല അവർക്ക് എഴുതാനും കഴിയുന്നുണ്ടാവില്ല പക്ഷെ ഇംഗ്ലീഷിലുള്ള അപേക്ഷ അവര് പുരിപ്പിക്കണ്ട ഒരാവശ്യം അവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയാളത്തില് ഇത്തരം അപേക്ഷകളൊക്കെ വരുമ്പോൾ അവർക്ക് സ്വയം പൂരിപ്പിക്കാനും പിന്നെ അതു പോലെ തന്നെ സ്വയം വായിച്ചെഴുതാനോക്കെ പറ്റും ആള് ഈ ഒരവസ്ഥ ഇത്രയും കാലം മുന്നോട്ട് പോയെങ്കില് പല പല നിർബന്ധമായിട്ടുള്ള ഘട്ടങ്ങളിൽ നമുക്കെപ്പോഴും ഇംഗ്ലീഷ് അറിയുന്നവര് മാത്രമെ കിട്ടുകയുള്ളു എന്നൊന്നുവല്ല ബാങ്ക് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടി വരും എല്ലാവരും പ്രയോജനപ്പെടുത്തുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ പ്രായമായിട്ടുള്ള ആൾക്കാര് വരുമ്പോൾ നമുക്ക് പറഞ്ഞ് മൻസ്സിലാക്കി കൊടുക്കുന്നതിനെക്കാട്ടിൽ ചിലപ്പോൾ അവർക്ക് മലയാളം അപേഷ ഫോമുകൾലൂടെ ചിലപ്പം മൻസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നോടത്ത് മലയാളത്തിന് മലയാളത്തിലുള്ള അപേക്ഷകള് കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ പ്രയോജനമാകും എന്നാണ് തോന്നുന്നത്